ഹലോ ആ ഹലോ പറഞ്ഞോളൂ ആ നിങ്ങൾ ഇപ്പം എവിടെ നിന്നാണ് വിളിക്കുന്നത് ഓക്കെ ഓക്കെ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഓക്കേ ആ

ഒരു ഒരെണ്ണം മതിയോ ഒരെണ്ണം മതി ഓക്കെ എത്ര ഒരു മാസത്തേക്ക് ഒരു ആ അത് തരാം ഒരു മാസത്തേക്കാണോ ഫുൾ ഫുൾ ടൈം വേണോ ഒരു മാസത്തേക്ക് മ് നമുക്ക് ഡേയാണെ നമ്മൾ റെൻറ്റൊക്കെ വെച്ചിരിക്കുന്ന ഡേ അവേർസ് അനുസരിച്ചാണ് നമ്മൾ വയ്ക്കുന്നത് ഇപ്പം നിങ്ങൾ ഒരു മാസത്തേക്ക് വയ്ക്കുന്നത് ആണെങ്കിൽ ഒരു കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് നടത്താം കുഴപ്പമില്ല ആ നമ്മൾ അവേർസ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസത്തേക്ക് ചോദിക്കുമ്പോൾ നമ്മൾ അത് കൺവേർട്ട് ഒരു ഡേ വച്ച് നമ്മൾ തരാം അപ്പോൾ ഒരു ഡേക്ക് പെട്രോളൊക്കെ നിങ്ങൾ അടിക്കണം ആ അപ്പം ആ ചിലവ് പിന്നെ വടകയുടേത് ത് മാത്രല്ല അപ്പോൾ ഒരു മാസത്തേക്ക് അത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെയായത് കൊണ്ട് നമ്മൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്താണെന്ന് വെച്ചാൽ

ആ അത് ആ അത് കുഴപ്പമില്ല നമ്മൾ എനിക്ക് ഒന്ന് ഞാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡേ നമ്മൾ പറയുമ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപ വാങ്ങിക്കാം പെട്രോളൊക്കെ നിങ്ങൾ അടിക്കുമല്ലൊ അപ്പോൾ ആ രീതിയിൽ അല്ലെങ്കിൽ പിന്നെ മാസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറയ്ക്കാം ഒരുമാസം ആയത് കൊണ്ട് എഴുന്നൂറ്റി അൻപത് ഓക്കെ ആണോ ആ അപ്പം അങ്ങനെയാണ് ആ എത്ത എത്രയ്ക്കാണ് അതല്ല നമ്മൾ ഡേ അവേർസല്ലേ കൊടുക്കുന്നത് അപ്പം അവേർസ് വൺ അവർ വെച്ച് മുന്നൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് ആ അവേർസ് അപ്പം ആ രീതിയിൽ ഒരു എഴുന്നൂറ്റി അൻപത് പറഞ്ഞതാണ് കുഴപ്പം ഇല്ല അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട അറുന്നൂറു രൂപ എന്ന നിലയിൽ ചെയ്യാം മ് ആ ആ പിൻ

ഓക്കെ പക്ഷേ നമുക്ക് ഇതിൽ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡെൻറ്റോ അങ്ങനെ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ സംഭവിക്കുവാണെങ്കിൽ അത് നിങ്ങൾ തന്നെ ഉത്തരവാദിത്തം എടുക്കണം നമ്മൾ കമ്പനി അതിന് ഉത്തരവാദിത്തം എടുക്കത്തില്ല അപ്പം അത് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ആ ആ ഉണ്ട് അത് നിങ്ങൾ ഡ്രൈവിങ് ലൈസെൻസിൻ്റെ കോപ്പിയും ആധാറിൻ്റെ കോപ്പിയും തരണം ഫോൺ നമ്പറും ആ ഒരാളുടെ മതി ഒരാളുടെ മതി ആ ആ രണ്ടുപേരുടെ വേണ്ട നമുക്ക് ഒരാളുടെ മതി കുഴപ്പമില്ല അ അത് കുഴപ്പമില്ല ഇപ്പം തത്കാലത്തേക്ക് നമുക്ക് ഒരാളുടെ മതി ഒരാളുടേത് വെച്ചിട്ട് നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇപ്പോൾ നമ്മൾ ഒരാളുടേത് വാങ്ങിക്കാറുള്ളൂ നിങ്ങൾ രണ്ടുപേരും കൂടെയല്ലേ ഒരാളുടെ മതി എന്നാൽ അടുത്ത ആളുടെ ഒരെണ്ണം കൂടെ എടുക്കാൻ വരുമ്പോൾ അപ്പോൾ കേട്ടില്ല ആധാർ ആധാറിൻ്റെ കൂടെ വേണം ആധാറിൻ്റെ കൂടെ വേണം ആ ആധാറിൻ്റെ കോപ്പി ആ മതി മതി ഈ വിളിച്ച നമ്പറിലോട്ട് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താലും മതി അപ്പം എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ പിന്നെ ഉത്തരവാദിത്തം നിങ്ങളുടേതാണ് വണ്ടിക്ക് എന്തെങ്കിലും ഈയൊരു മാസത്തിലെന്തെങ്കിലും സംഭവിച്ചാൽ അത് റെഡിയാക്കി ഒക്കെ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ നമ്മളൊന്നും ചെയ്യത്തില്ല മനസിലായില്ലേ അപ്പം ഫുൾ ഉത്തരവാദിത്തം ഒരു മാസത്തേക്കെടുത്തിട്ട് തിരിച്ചു തരിക പിന്നെ നാളെ എപ്പോഴാണ് വരുന്നത് എന്ന് ഒന്നു പറഞ്ഞാൽ മതി നമുക്ക് ഇവിടെ വണ്ടി ഉണ്ട് ആ നമ്മൾ പത്ത് മണിക്കാണ് ഒൻപതരയ്ക്ക് തുറക്കും പത്ത് മണിക്കാണ് കസ്റ്റമേഴ്സ് വന്ന് തുടങ്ങുന്നത് അപ്പം ആ രീതിയിൽ കുഴപ്പമില്ല കുഴപ്പമില്ല വന്നാൽ മതി മ്

മ് ആ

വന്നാൽ മതി വന്നാൽ മതി കുഴപ്പം ഇല്ല ആ ശരി ശരി ആ പിന്നേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് നമ്മൾ തരും പ്രശ്നമല്ല നിങ്ങളുടെ കംഫർട്ടാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ തരും പൈസയുടെ കാര്യത്തിൽ നമുക്ക് പിന്നെ അവസാനം ഒരു മാസം കഴിയുമ്പോൾ നോക്കാം വേണമെങ്കിൽ അതിൽ ഇചിരിയും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തരാം കേട്ടോ ആ ശരി ശരി ഇല്ല ആ കുഴപ്പം ഇല്ല കുഴപ്പം ഇല്ല ആ അ ശരി ശരി